എൻ്റെ നാട്ടിലും സാംസ്കാരിക സംഘങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് തണൽ എന്ന സാംസ്കാരിക സംഘം തന്നെയാണ് ആ നാടിൻ്റെ ഉന്നമനത്തിനും കൃഷിരീതികളുടെ ഉന്നമനത്തിനും ആയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് ഒരു യുവത്വ സംഘത്തിൻ്റെ കൂട്ടായ്മ തന്നെയാണ് ഇത് ഞങ്ങളുടെ സാംസ്കാരിക സംഘം പുറത്തുള്ളവരുമായി ഞങ്ങൾ ഇടപഴകാറുണ്ട്